നമ്മുടെ വസ്ത്രങ്ങൾ കുറച്ചു ഉപയോഗിച്ചു കഴിയുമ്പോൾ അത് അഴുക്ക് പിടിക്കും അപ്പം അത് ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതെപ്രകാരമാണ് കഴുകി ഉപയോഗിക്കുന്നതെന്ന് ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഈ അദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്ത്രം ഒത്തിരി മുഷിയാതെ സൂഷിക്കുന്നതാണ് നല്ലത് കാരണം വല്ലാതെ അഴുക്കു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് എത്ര മാത്രം കഴികിയാലും അതിന് ആ പഴയ ഒരു വെണ്മ കിട്ടത്തില്ല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്ത്രം എപ്പോഴും ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളു ഉപയോഗിക്കുള്ളു അപ്പം അങ്ങനെ നമ്മൾ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പിന്നെ മറ്റൊന്ന് ആദ്യമേ അൽപം സോപ്പ് ലായനി അതായത് സോപ്പ് പൊടി കലക്കി ഒരു ബക്കറ്റിന് അല്ലേ ഒരു ചരുവത്തിൽ അൽപം സോപ്പ് പൊടി കലക്കി വച്ചതിന് ശേഷം ആ വെള്ളത്തിൽ ഇത് ഒരു കുറച്ചു സമയം അങ്ങോട്ട് മുക്കി ഇടുക അപ്പം അത് ഈ സോപ്പ് ലായനിയിൽ പിന്നെ മുക്കിയിട്ട് കഴിയുമ്പോൾ വസത്രത്തിൻ്റെ ഇഴ ഇഴയ്ക്ക് ഇടയിലൂടെ ഒക്കെ ഇത് കയറി ഇതിൻ്റെ ആ അഴുക്കുകളൊക്കെ ഏകദേശം ഇളകിയ ഇരിക്കും അപ്പം നമ്മൾ പിന്നെ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ പിന്നെ ഇളകിയിരിക്കുന്ന സാദനങ്ങൾ നമ്മൾ അത്യാവശ്യമെടുത്തു അത് ഒരു നല്ല കല്ലിൽ ഇട്ട് അത് ഒന്ന് കുത്തിപ്പിഴിഞ്ഞു പിന്നെ അതിനെ അത് കുത്തി ഒത്തിരി അലക്കാൻ പറ്റുകയില്ല കാരണമെന്നാണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തുണികളൊക്കെ നമുക്ക് ഒത്തിരി അലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തുണിക്ക് അതിന് ഷേ കേടുപാടുകൾ ഉണ്ടാവും അത് തുണിക്ക് അനുസരിച്ചു ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള തുണികളൊക്കെ കുത്തി പിഴിയുക എന്നു പറയും ഒരു ചെറിയ ഒരു അലക്ക് കല്ലിൽ ഇട്ട് നമ്മൾ ചെറിയ ഒരു പ്രസ്സിങ്ങ് ചെയ്തു പിന്നെ അപ്പം ഈ ചെളി നന്നായിട്ട് ഇളകുവയും ചെയ്യും അപ്പം പിന്നെ ഈ തുണിക്ക് വലിയ ഷേക്ക് വരത്തില്ല അങ്ങനെ എന്നിട്ട് കുറച്ചു വെള്ളമെടുത്ത് പിന്നെ ഒന്നു ഊരി പിഴിഞ്ഞു പിന്നെ ആ വെള്ളം വീണ്ടും വേറെ ഒരു ബക്കറ്റിൽ ചുട് പിയറായിട്ടുള്ള വെള്ളമെടുത്ത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആവർത്തി നമ്മൾ വെള്ളം മാറി മാറി ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ ഈ അഴുക്കുകൾ പോയി നന്നായിട്ട് തെളിഞ്ഞു വരും തെളിഞ്ഞു എന്നു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ പിന്നെ വെള്ളം മലാനായിട്ട് കുറച്ചു നേരം നമ്മൾ ഒന്നെങ്കിൽ ഒരു അയ കെട്ടി തൂക്കി ഇടുകയോ അല്ലെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം അപ്പം അങ്ങനെയുള്ള ആ വസ്ത്രങ്ങൾ നമ്മൾ മൊത്തം കഴുകി തീർന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ചില വസ്ത്രങ്ങൾക്ക് ഈ പശ ആവിശ്യമുണ്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് പശ മുക്കിയിടേണ്ടെ ആവശ്യം വരും അപ്പം നമ്മൾ അത് പിന്നെ മുക്കി പശ മുക്കി പിന്നെ നേരിയ വെയിൽ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില തുണികളൊക്കെ നമ്മൾ നല്ല കഠിനമായ വേനൽ ആണെങ്കിൽ ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നമ്മൾ പ്യുവർ ആയിട്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ കൊണ്ടു പോയിട്ട് കഴിഞ്ഞാൽ ഈ വസ്ത്രത്തിന് വരുന്ന പ്രശ്നമെന്ന് വച്ചാൽ ഇതിൻ്റെ നിറം മങ്ങലെന്ന് പറയും അപ്പം അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും അപ്പം എപ്പോഴും നമ്മൾ ഒരു ഷേയ്ഡ് സ്ഥലങ്ങളിൽ എന്നു പറഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കില്ലാത്ത സ്ഥലത്ത് ഇട്ട് തുണി ഉണങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം അത് നമ്മൾ പശയൊക്കെ മുക്കുന്നുണ്ടെങ്കിൽ പശയൊക്കെ മുക്കിയിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ ഈച്ചുളുക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ കുറേ മാറി കിട്ടും അപ്പം നമ്മൾ അത് പിന്നെ പരമാവധി പിന്നെ ഈ ഷേയ്ഡ് സ്ഥലങ്ങൾ ഓപ്പൺ ടെറസുകൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റൂഫിങ്ങൊക്കെയുള്ള വീട് ആണെങ്കിൽ ആ ഓപ്പൺ ടെറസുകളുക്കെ നമ്മൾ തുണി ഇട്ട് ഉണങ്ങാണെങ്കിൽ എപ്പോഴും നമുക്ക് അത് ഈ നിറം മങ്ങാതെ സൂക്ഷിക്കാൻ സാധിക്കും അപ്പം പിന്നെ അത് അതാണ് അങ്ങനെയുള്ള അത് മഴക്കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഓപ്പൺ സ്ഥലങ്ങൾ ഒരു കാരണവശാലും തുണി കഴികിയിട്ട് നമ്മൾ പശയൊക്കെ മുക്കിയിട്ട് ഒരു കാരണവശാലും ഓപ്പൺ സ്ഥലങ്ങൾ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നേ അതിനാണ് നമ്മൾ ഈ പറഞ്ഞത് ഷേയ്ഡുള്ള സ്ഥലത്ത് ടെറസ്സ് പോലെയുള്ള പിന്നെ റൂഫിങ്ങൊക്കെയുള്ള ടെറസ്സ് എല്ല് നമ്മൾ പിന്നെ വള്ളി അയൽ വള്ളി കെട്ടി അതിൽ ഇട്ട് അപ്പം ഈ കാറ്റ് അടിച്ചു ഈ കാറ്റ് കലാവസ്ഥ എന്നു പറയുമ്പോൾ അങ്ങനെ അടിച്ചു ശരിക്കും മഴക്കാലത്ത് നമുക്ക് ചൂട് കിട്ടത്തില്ല സൂര്യൻ്റെ പ്രകാശമൊട്ടും തന്നെ കിട്ടുന്നില്ല അപ്പം ഈ കാറ്റ് അടിച്ചു കഴിയുമ്പം പിന്നെ നമുക്ക് ഈ തുണി ഉണങ്ങി എടുക്കാൻ സാധിക്കും ആ കാറ്റത്ത് തന്നെ തുണി ഉണങ്ങി എടുക്കാൻ സാധിക്കും പിന്നെ വെള്ളം വെള്ളം കൂടുതൽ ചിലവാക്കാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ട് അതായത് ഇപ്പം നമ്മൾ സോപ്പ് വെള്ളം മുക്കി ഇടും എന്നു പറഞ്ഞു അഴുക്ക് തുണികൾ സോപ്പ് വെള്ളത്തിൽ ആദ്യം മുക്കി ഇടുന്നു അത് വെള്ളം ഒക്കെ ലാഭിക്കാൻ ആണെങ്കിൽ എന്താണേന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറേ ജോടി അതായത് ഒരു നാല് അഞ്ച് ജോഡി ഒന്നിച്ചു അങ്ങ് കഴുകണം അപ്പം ഈ സോപ്പ് വള്ളത്തിൽ മുക്കി ഇടുന്ന തുണികളെന്ന് പറയുമ്പം നമുക്ക് അത് ഒരു കുറേ കൂടുതൽ ഒരൂ ചരുവത്തിൽ ഈ സോപ്പ് വെള്ള ലായനിയിൽ എടുത്തു വച്ചു അതിന് അകത്ത് അങ്ങ് ഒന്നിച്ചു മുക്കി ഇടാം അതുപോലെ അപ്പം ഒരു രണ്ട് മൂന്ന് പാത്രങ്ങളിൽ ഒരു രണ്ട് മൂന്ന് ചരുവം അതിനകത്ത് വെള്ളം പിടിച്ചു വച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ആ തുണികൾ എടുത്തു നമ്മൾ കല്ലിൽ അത്യാവശ്യം ഒന്ന് കുത്തി പിഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ചരുവത്തിൽ വെള്ളത്തിൽ ഒന്ന് മുക്കി പിന്നെ ഏകദേശം ഒന്ന് പിന്നെ മുക്കി പിഴിഞ്ഞു അടുത്ത ചെരുവത്തിലേക്ക് ഇട്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആവർത്തി വെള്ളം നമ്മൾ ചരുവങ്ങളിൽ മാറി മാറി ഇപ്പം ഏറ്റവും മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ പാത്രം അതിൽ വെള്ളത്തിൽ നമുക്ക് പ്യുവറായിട്ട് നമുക്ക് ഈ അഴുക്കെല്ലാം പോയിട്ട് തെളിഞ്ഞു കിട്ടും അപ്പം അത് നമുക്ക് ആ പറയുന്ന ഒരു കുറേ തുണികൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഈ ഈ രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളമേ നമുക്ക് ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഒരു ആറ് ഏഴ് ജോഡി തുണികൾ കഴുകി എടുക്കാൻ പിന്നേ ഈ ഇത്രയും വെള്ളത്തിൻ്റെ ആവിശ്യമേ നമുക്ക് വരത്തുള്ളു അതിന് നമ്മൾ ഓരോ ജോഡി തുണികൾ നമ്മൾ കഴിയെടുക്കാന്ന് പറയുമ്പം അതിനും ഈ അടുത്ത് വെള്ളം നമുക്ക് ചിലവ് വരും അപ്പം ഈ രീതി ന മുക്ക് ചെയ്യുക ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ചിലവ് വളരെ അധികം കുറയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ വസ്ത്രങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ മുഷിയാതെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുക ആണെങ്കിൽ നമുക്ക് എപ്പോഴും കംഫോർട്ട് ആയിട്ട് വസ്ത്ര ധാരണം ചെയ്യാൻ സാധിക്കും അത് ഒരു നമ്മൾ തുണി ഇസ്തിരി ഇടുക എന്നു പറഞ്ഞാൽ ഇസ്തിരി ഇടുന്നത് ഒത്തിരി ഉണങ്ങി വല്ലാണ്ട് ഉണങ്ങിയ തുണികൾ ഇസ്തിരി ഇടേണ്ടവരുടെ അടുത്ത് കൊണ്ടോയി ഈ ചുളുക്കവൊന്നും മാറത്തില്ല അതേസമയം ഒരു ഒരൂ അത്യാവശ്യമായ ഒരു നേരിയ ഉണക്ക് വലിയ അധികം ഉണങ്ങിപ്പോകാതെ ഒരു നേരിയ രീതിയിലുള്ള ഉണക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഇസ്തിരി ഇടാനൊക്കെ ഒത്തിരി എളുപ്പം ഉണ്ടാകും പിന്നെ ഇങ്ങനെ നമുക്ക് തുണികൾ ക്ലീൻ ചെയ്തു കൊണ്ട് നടക്കാൻ പറ്റും അത് ഏത് കാലാവസ്ഥയിൽ ആണെങ്കിലും വെയിലാവട്ടെ മഴയാകട്ടെ മഞ്ഞാകട്ടെ ഏത് കാലാവസ്ഥയിൽ ആണെങ്കിലും നമുക്ക് ഇത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നമുക്ക് കഴുകിയല്ലേ മതിയാവു അപ്പം അതിന് അതിൻ്റേതായ രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താം അങ്ങനെ നമ്മൾ തുണികള് ഉണങ്ങി കഴുകി എടുക്കുകയും പിന്നെ ഒള്ള കാര്യമെന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വലിയ അധികം ചിലവാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം അത് ഈ പറഞ്ഞ രീതിയിൽ ബക്കറ്റുകളൊക്കെ നമുക്ക് ഈ പിഴുതെടുത്തു കഴിഞ്ഞാൽ മുക്നക്ക്ക് ഒത്തിരി അധികം ചിലവാകാതെ വെള്ളം വളരെ അധികം വളരെ കുറച്ചു ചിലവാക്കി ചിലവാകുന്ന രീതിയിൽ എടുത്താൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ പാഴായി പോകുന്ന വെള്ളം പാഴാകുന്നില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും